ആ അതെ പറഞ്ഞോ ആരാണ് തേങ്ങ വേണമായിരുന്നു അല്ലേ എന്നും വേണ്ടിയാ വേണ്ടത് എത്ര കിലോയാ വേണ്ടത് ആ ചേട്ടാ നമ്മളേ ഒന്നാമത്തെ കാര്യം ബിസിനസ്സ് ഡള്ളാണ് അപ്പോഴത്തേക്കും നമ്മൾ കിലോ കിലോ കണക്കിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഈ എണ്ണമായിട്ട് കൊടുക്കാറില്ല ചേട്ടാ ഇത് നമ്മൾ ചേട്ടാ കിലോ കണക്കിനെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് കഴിഞ്ഞാൽ അത് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതിന് വില കിട്ടത്തില്ല കാരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം വൻ നഷ്ട കച്ചവടമാണ് കേട്ടോ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ അഞ്ചാറ് തേങ്ങ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തരാം പക്ഷെ നമുക്ക് വൻ ന നഷ്ട കച്ചവടമാണ് കാരണം ഒരു തേങ്ങയെന്ന് വെറും തു തുച്ഛമായ വെറും വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അതും ഇപ്പോഴത്തെക്കാലത്ത് ഒരു തേങ്ങയ്ക്ക് നമ്മൾ കൊടുക്കത്തില്ല നമ്മൾ ഒരു കിലോയ്ക്ക് കൊടു ഒരു കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു തേങ്ങയ്ക്ക് നമ്മൾ വ് വില ഇട്ടിട്ടില്ല അത് നമുക്ക് ആ തേങ്ങ വെച്ച് ആ തേങ്ങ ആ ത്രാസിൽ കിലോ അതാണ് പറഞ്ഞത് ഒരു കിലോ മുപ്പത്തിയഞ്ച് രൂപ

വേണം അപ്പോഴത്തേക്ക് നിങ്ങൾ ചുമ്മാ തേങ്ങയ്ക്ക് തുച്ഛമായിട്ടുള്ള പൈസ തന്നാൽ നമുക്ക് അതിൽനിന്ന് ഒന്നും ആവത്തില്ല എൻ എന്ത് വിചാരിച്ച് ചേട്ടാ ചേട്ടന് തേങ്ങ വേണമെന്ന് മാത്രമല്ലേ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ്റെ തേങ്ങ വേണ്ട ചേട്ടൻ വെ വേറെന്തെങ്കിലും പറ ആ എന്നാൽ ചേ അല്ലെങ്കിൽ ചേട്ടൻ വെച്ചിട്ട് പോ അല്ലെങ്കിൽ നമ്മളെ ഈ ബിസിനസ്സ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളെ വിളിച്ചിട്ട് തേങ്ങ തരാൻ പറ തേങ്ങ വേണം മറ്റേത് മറിച്ചെതാണ് മാടയാണ് കോടയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല കേട്ടോ

അഞ്ച് തേങ്ങയെന്ന് പറയുമ്പോഴത്തേക്കും ആ ആ എന്നാൽ ഒര് മൂ മൂന്ന് മൂ മൂന്ന് കിലോ മൂന്നര കിലോ എങ്കിലും വരും വരും നമ്മുടെ തേങ്ങ ആ മൂന്നര കിലോയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കിലോ മുപ്പത്തിയഞ്ച് വെച്ച് കൂട്ടിക്കോ അല്ലെങ്കിൽ ഒരു കിലോ മുപ്പത് വെച്ചെങ്കിലും കൂട്ടിക്കോ ഒരു പത്ത് നൂറ്റമ്പ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തെങ്കിലും ആവും ഇരുന്നൂറ് രൂപ ആവും പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ വന്ന് തേങ്ങ എടുക്കുവാണോ അതോ ഇവിടെ വന്ന് തേങ്ങ എ അല്ല അല്ല പൊ തേങ്ങ പൊതിച്ചാണ് തരുന്നത് പൊതിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ തൊണ്ടിന്റെ വെയ്റ്റും ഒരു കിലോ താ അല്ലെങ്കിൽ ഒര് ഇത് ഒര് ക് ഒരു തേങ്ങ ഒരു കിലോ താഴെ വെറും എണ്ണൂറ് ഗ്രാമൊക്കെ വരത്തൊള്ളൂ

ത് തൊണ്ട് പൊതിച്ചിട്ടാണ് നമ്മൾ തേങ്ങ ഉ തൂക്കി തരുന്നത് എല്ലാവർക്കും അങ്ങനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ആ തൊണ്ട് വേണമെന്നാണോ നിങ്ങൾ പറയുന്നത്

അത് ആ തേങ്ങ മാത്രം തരാം നിങ്ങളെങ്ങനെയാണ് ഇങ്ങോട്ട് വരുവോ അതോ നമ്മൾ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ട് തരാം അങ്ങോട്ട് അങ്ങോട്ട് സ്പീഡ് പോസ്റ്റ് ചെയ്യാം അഡീഷണല് ചാർജ് വരും അത്രേ ഉള്ളു ഒരം ഒരമ്പത് രൂപ വരും ചേട്ടാ തൊണ്ടേ

അമ്പളം

ആ ശരി എന്നാൽ ആയിക്കോട്ടെ ആ തേങ്ങ വേണ്ട മേടിക്കണ്ട